ഇപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ കുറേപേർക്ക് ഇഷ്ടമുള്ളൊരു ഇതാണ് മത്തിയെന്നു പറയുന്നത് അതിന് വേറൊരു പേര് ചാളയെന്നൊക്കെ പറയും അപ്പോൾ ഒന്നു മത്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട മീൻ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ കിളിമീനാണ് കിളിമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നത്തൽ നത്തലെന്നു പറയുന്ന മീനൊക്കെ എല്ലാവരും വാങ്ങി കഴിക്കാൻ ആഗ്രഹിക്കുന്ന അതായത് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ നന്നാക്കാൻ കുറച്ച് പണി പാളും അങ്ങനത്തെ മീനുകളാണ് പക്ഷേ കഴിക്കാൻ ഏറെക്കുറെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മീനുകളാണ് ഇതൊക്കെ